നമ്മള് ഞാനിപ്പോള് നില്ക്കുന്നത് കേരളം എന്ന ഒരു സംസ്ഥാനത്താണ് ഇന്ത്യ എന്ന മഹാ രാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനം അവിടെ പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ടായി കഴിഞ്ഞുപോയിട്ടുണ്ട് ഇപ്പോള് ശക്തമായി നില്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് ബി ജെ പി അഥവാ ഒരു മതത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയ പാർട്ടിയാണത് പിന്നെയുള്ളത് കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി പട പൊരുതിയ ഉറപ്പായ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിന്പറ്റി ഉണ്ടായൊരു പാർട്ടിയാണ് കോൺഗ്രസ് അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മൂന്നാംകിട ഒരു ശക്തിയായുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാല് ലോകത്തുതന്നെ അറിയാം സോവിയറ്റ് യൂണിയൻ്റെ ഒരു അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ഒരൂ ഒരൂ എന്താണു പറയുക ഒരു കൾച്ചറൽ ഇതാണത് കമ്മ്യൂണിസമെന്നത് അതിപ്പോള് ഇന്ത്യയിലും ചില സംസ്ഥാനങ്ങളിപ്പോഴും ഇപ്പോള് കേരളം ഞാനിപ്പോള് നില്ക്കുന്നത് കേരളമെന്ന സംസ്ഥാനത്താണ് ഇപ്പോഴിവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നെ പല പാർട്ടികളുണ്ട് ബഹുജനപ്പാർട്ടി അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ്സ് ഇപ്പോള്ത്തന്നെ പല പാർട്ടികളും ഇന്ത്യയില് ഉണ്ട് അതിലേറ്റവും പവർഫുള്ളായ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതും അതുപോലെ ഇന്ത്യയിലെ പല രാജ്യത്തും പല സ്ഥലങ്ങളിലും അതിൻ്റെ സംസ്കാരത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നൊരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സ് തന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാനത്ത് നോക്കാണെങ്കില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോഴും ജനങ്ങൾ സപ്പോട്ട് ചെയ്യാൻ പണ്ട് കാലത്തുള്ള പല അടിച്ചമർത്തലുകളെയും വേദനകളെയും മറി കടന്ന് വന്നൊരു തൊഴിലാളി വർഗ്ഗ പാർട്ടിയാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പണ്ട് കാലത്തിവിടെ ജന്മി കുടിയാൻ വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽത്തന്നെ ബ്രിട്ടീഷുകാര്ക്കെതിരെ പോരാടിയ ജനങ്ങള് പിന്നെ തമ്പടിച്ച് കൊണ്ട് ഇങ്ങനെ പല കമ്മ്യൂണിസം എന്ന ചിന്തയിലേക്കൊക്കെ മാറി വരുന്നത് നമ്മുടെ ചരിത്രം പരിശോധിച്ചാല് നമുക്ക് കാണാനാകും